കേരളത്തിൽ ഒരുപാട് വാർത്ത ഔട്ട്ലെറ്റുകളുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ന്യൂസിനായാലും അതുപോലെ തന്നെ എൻറ്റർടൈൻമെൻറ്റിനായാലും സ്ഥലങ്ങൾ കാണാനായാലും അതുപോലെ തന്നെ ഒ ടി ടി ഫ്ലാറ്റ്ഫോംസ് അങ്ങനെ ഒരുപാട് കാര്യം ഒരുപാട് ജനപ്രിയമായ ഔട്ട്ലെറ്റുകൾ നമുക്ക് കണ്ട് വരുന്നുണ്ട് അതിൽ ഇപ്പോൾ നമ്മൾ വാർത്താ ചാനലുകൾ നോക്കിയാൽ ഒരുപാട് എണ്ണമുണ്ട് അതായത് മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് ന്യൂസ് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ റിപ്പോട്ടർ മീഡിയവൺ അങ്ങനെ ഒരുപാട് ന്യൂസ് ചാനൽസു ഒണ്ട് എല്ലാവരും അതിൽ എന്താണ് കറണ്ട് അഫയേഴ്സും പൊളിറ്റിക്സിനെ പറ്റിയും അതായത് ഒരു ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്തയെ പറ്റി ഇൻ ഡെപ്ത്ത് ആയിട്ട് റിപ്പോട്ട് ചെയ്യുന്നുമുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പീനിയനിലിൽ വാർത്ത അതായത് ന്യൂസ് ചാനൽസിൽ എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലാണ് അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് കാരണം ഇവർ രണ്ട് പേരും കുറച്ച് കൂടെ റിയലിസ്റ്റിക്കായിട്ടാണ് അവരുടെ വാർത്ത അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നോക്കിയാലും അവർ ഒരുപാട് പ്രോഗ്രാംസ് നല്ല നല്ല പ്രോഗ്രാംസ് ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നല്ല നല്ല എൻഗേജിംഗായിട്ടുള്ള പ്രോഗ്രാംസ് അവർ സംപ്രേക്ഷണം ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അതായത് എഫ്ഐആർ പോലെയുള്ള പ്രോഗ്രാംസ് ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ നോക്കിയാലും അതിൽ ആദ്യം തന്നെ വരുന്നത് മലയാള മനോരമയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഒരു പത്രം എന്ന് പറയുന്നത് മലയാള മനോരമയാണ് അത് കഴിഞ്ഞ് മാതൃഭൂമി പിന്നെ കേരള കൗമുദി അങ്ങനെ അങ്ങനെ പോവും ഇപ്പം നമക്ക് യാത്രകളെയും അതുപോലെ തന്നെ സ്ഥലങ്ങളെപ്പറ്റിയും ഒക്കെ അറിയണം കാണണം എന്നുണ്ടെങ്കിൽ സഫാരി ചാനലുമുണ്ട് സഫാരി ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒരു പരസ്യം പോലുമില്ല അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാത്ത ഒരു ചാനലാണ് സഫാരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് എൻറ്റർടൈൻമെൻറ്റ് ചാനലുകളുണ്ട് എൻറ്റർടൈൻമെൻറ്റ് ഔട്ട്ലെറ്റ്സ് ഉണ്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് പിന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഏഷ്യാനെറ്റ് ചാനലുണ്ട് സൂര്യ മഴവിൽ മനോരമ

സിനിമ സംരക്ഷണം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പാട്ടിന് വേണ്ടിയിട്ട് മാത്രം ചാനലുകളുണ്ട് ഇപ്പം നമ്മൾ ന്യൂസ് ചാനല് ന്യൂസിൻ്റെ കാര്യം തന്നെ നോക്കിയാലും നമുക്ക് തത്സമയം ഇരുന്ന് തന്നെ വാർത്തകൾ വീട്ടിലിരുന്ന് അറിയാൻ കഴിയും അത് നമുക്ക് ഈ ന്യൂസ് ചാനലുകൾ മാത്രമല്ല ഓൺലൈനിൽ ഒരുപാട് ന്യൂസ് ചാനലുകളുണ്ട് പക്ഷെ ചില ന്യൂസ് ചാനലുകൾ അതിപ്പം ഓൺലൈനായാലും അല്ലാത്ത ചാനലുകളായാലും പൊളിറ്റിക്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ പല ന്യൂസും വളച്ചൊടിക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് മീഡിയാസുണ്ട് അതായത് ഈ നമ്മൾ യൂട്യൂബിലും എല്ലാം നമ്മൾ വ്ളോഗ് ബ്ലോഗ് അത് എല്ലാം നമ്മൾ കണ്ട് വരുന്നുണ്ട് അതും ഒരുപാട് ജനപ്രിയമാണ് ഇപ്പോൾ എല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു യൂട്യൂബ് ചാനലുണ്ടായിരിക്കും കാരണം എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട ഒരു വേദിയായി മാറിയിരിക്കുകയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് കാണാനും ചെയ്യാനും എല്ലാം അതുപോലെ തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ അങ്ങനെ ഒക്കെ ഒരുപാട് ഒടിടി ഫ്ലാറ്റ്ഫോംസുണ്ട് നമുക്ക് അതിൽ സിനിമ സീരീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനും കഴിയും ഇതെല്ലാം ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ആണ്